ആരാണ് വിളിക്കുന്നത് എന്ത് എന്താണ് സാറേ ആവശ്യം അത് ഇപ്പോൾ എന്നത്തേക്ക് വേണ്ടതാണ് ആ മുന്നൂറ് മുന്നൂറ് കുട്ടികൾ ഉണ്ടല്ലേ ആ ആ ഇവിടെ പിന്നെ ഇപ്പോൾ തയ്യൽ ഇച്ചിരി ബിസിയായിട്ട് നടക്കുകയാണ് സ്കൂൾ ടെ സ്കൂള് തുറന്ന ദിവസം ആയത് കൊണ്ട് കൂടുതലായിട്ട് സമയം തിരക്കാണ് പിന്നെ ഒരു മാസത്തിനകം തയ്ച്ച് തരണം എന്നല്ലേ പറയുന്നത്

അത് ശരി ആ നോക്കട്ടെ നിങ്ങളുടെ എങ്ങനെയാണ് തുണിയുടെയൊക്കെ നിങ്ങളുടെ സ്കൂളിൽ തന്നെ തുണിയുണ്ടോ അതോ ഞങ്ങൾ വെളിയിൽ നിന്ന് എടുക്കണോ അത് ശരി അപ്പോൾ ആൺകുട്ടികൾടെയും പെൺകുട്ടികൾടെയും സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് വരണം പിന്നെ അത്ര എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നത് യുപി സ്കൂളിലെ കുട്ടികൾ അല്ലേ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പിന്നെ ആൺകുട്ടികൾക്ക് അവരുടെ പിന്നെ ഡ്രസ്സ് ഏത് രീതിയിലാണ് തയ്ക്കേണ്ടത് ആ ആ ആ ചുരിദാർ ചുരിദാർ സാറേ ആ എൻ്റെ തന്നിട്ട് ഇത് തയ്ച്ചിട്ട് അവർക്ക് വെറുതെ പിന്നെ എല്ലാവർക്കും ഇപ്പോൾ കോട്ടും ട്ടോപ്പെല്ലാം സ്കൂളിലും കോട്ടും കൂടെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് കോട്ടും തയ്ക്കണം അല്ലേ അത് എത്രയും പെട്ടെന്ന് തയ്ക്കണമെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളൂ ഇത് ഇപ്പോൾ സാർ സാർ ഇപ്പോൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് എത്രയും പെട്ടെന്ന് തരുകയും ചെയ്യണം പിന്നെ ഇത് ഇപ്പോൾ അവസാന നിമിഷം കൊണ്ടുത്തന്നാൽ എങ്ങനെയാണ് ആ എത്രയും പെട്ടെന്ന് തരാൻ നോക്കാം സാർ അന്നേരം എന്നത്തേക്ക് ഡ്രസ്സ് കൊണ്ടു വരും നാളെ തന്നെ കൊണ്ടു വരും അല്ലയോ ആ സെപ്പറേറ്റാണ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് വരണം പിന്നെ ഏത് ഏത് ഏത് കളറൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് പിന്നെ നൂലൊക്കെ നേരത്തെ അങ്ങ് വാങ്ങിക്കാൻ ആയിരുന്നു അത് ശരി പിന്നെ അപ്പോൾ അങ്ങനെ എത്രയും പെട്ടെന്ന് തരണം ഇപ്പോൾ തയ്യലിൻ്റെ ഒരു തിരക്കുള്ള സമയവുമാണ് നിങ്ങൾ ഇങ്ങനെ പെ ആ ശരി തിരക്കുകളൊക്കെ കഴിഞ്ഞ്